വർഷങ്ങളായി കോഴിക്കോട് ജില്ല മാറിയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ പറയുക കോഴിക്കോട് ജില്ലയിലെ കടലും ബീച്ചുകളും പിന്നെന്ന് പറഞ്ഞാല് താമസ ആ ഒരുപാട് ആളുകള് തിങ്ങി പാർക്കുന്ന സ്ഥലവും കൂടിയാണ് കോഴിക്കോട് ജില്ല കൂടുതലായിട്ടും മുസ്സ്ലിങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത് പിന്നേന്ന് പറഞ്ഞാല് ഇവിടെയുള്ള ആളുകളെന്നു പറഞ്ഞാൽ പല മേഖലയിലും വർക്ക് ചെയ്യുന്നവരാണ് കെട്ടിട നിർമാണം പിന്നെ ബാങ്ക് ഓഫീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഈ ബി കടലിലക്കയാണങ്കില് മീൻ പിടിക്കുന്നു ആളുകള് ഷിപ്പിംഗ് കണ്ടെയ്നർ നിർമ്മാണം അങ്ങനെയുള്ള അങ്ങനെയുള്ള നിർമ്മാണത്തിലൊക്കെ പങ്കെടുക്കുന്നവരൊക്കെ ഉണ്ട് പിന്നെ ഗ്ലാസ് ഉല്പന്ന നിർമ്മാണം ഗ്ലാസ്സൊക്കെ ഉൽപാദിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ നിർ പണിയെടുക്കുന്നവരൊക്കെ ഉണ്ട് പിന്നെന്ന് പറഞ്ഞാല് പിന്നെന്താ അതിനൊക്കെ കാരണം മാറ്റങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തെയാണ് ഇതൊക്കെ ബാധിക്കുന്നത് സാമ്പത്തിക വികസനം അടിസ്ഥാന സൗകര്യങ്ങള് സാമൂഹിക മാറ്റം താമസക്കാരിലുള്ള സ്വാധീനം അങ്ങനെ ഒരുപാട് പിന്നെ മാറ്റങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്